ഞാൻ കഴിഞ്ഞ ആഴ്ച്ച ഓൺലൈനിൽ ഒരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉള്ള ഒരു കമ്മലായിരുന്നു നമ്മൾക്ക് പരിപാടികൾക്ക് ഒക്കെ ഇടാൻ പറ്റിയ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള കമ്മലായിരുന്നു ഞാൻ വാങ്ങിയത് വളരെ കുറഞ്ഞ പൈസയ്ക്കാണെങ്കിലും നല്ല കോളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരുന്നു കമ്മൽ നമ്മൾക്ക് കാണുമ്പോൾ ഭയങ്കര വെയ്റ്റുള്ള കമ്മൽ പോലെ തോന്നുമെങ്കിലും അധികം ഭാരം ഇല്ലാത്ത കമ്മലായിരുന്നു എനിക്ക് പ്രോഗ്രാമിന് ഇട്ട് പോയിട്ടും പോയിട്ടും പരിപാടികൾക്ക് ഞാൻ കല്യാണത്തിനും എൻഗേജ്മെൻ്റിൻ്റെ പരിപാടികൾക്ക് ഒക്കെ ഇട്ടിട്ടും എനിക്ക് കാതിനൊന്നും ഒരു വേദനയും തോന്നിയിട്ടില്ല വളരെ നല്ല കമ്മലായിരുന്നു പിന്നെ കമ്മലിൻ്റെ ബാക്കിലെ ഇടുന്ന ആണിയാണെങ്കിലും വളരെ നല്ല കാതിൽ ചേർന്ന് നിൽക്കുന്നതായത് കൊണ്ട് നമ്മൾക്ക് കാതിൽ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുല്ല നല്ല അത്യാവശ്യം നല്ല ഭംഗിള്ള കമ്മലായിരുന്നു ഞാൻ വാങ്ങിയത് ഒരു സ്വർണ്ണ കളറുള്ള കമ്മലായിരുന്നു നല്ല ജുംക്ക പോലുള്ള കമ്മലായിരുന്നു അതിൻ്റെ തുഞ്ചലങ്ങളും ഒക്കെ നല്ല ഭംഗിണ്ടായിരുന്നു ഒരുപാട് പേർ എന്നോട് പറഞ്ഞു നല്ല ഭംഗിള്ള കമ്മലാണ് നല്ല വൃത്തിയുണ്ട് കാണാൻ അതുപോലെ തന്നെ എൻ്റെ ഡ്രെസ്സിനോട് എൻ്റെ സാരിയോട് നല്ലോണം മാച്ച് ആകുന്ന കമ്മലായിരുന്നു അത് കമ്മലിൻ്റെ ആ കല്ലുകളൊക്കെ നല്ല വ്യത്യസ്തമുള്ള കല്ലുകളായിരുന്നു നല്ല ഭംഗിയുള്ള തിളക്കമുള്ള കല്ലുകളായിരുന്നു അതൊന്നും ഇളകിപ്പോരുന്നുണ്ടായിരുന്നില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം താഴെ വീണു പോയിട്ടുണ്ട് പക്ഷെ അത് ഇതു വരെ പൊട്ടിയിട്ടില്ല നല്ല ഈട് നിൽക്കുന്ന കമ്മലാണത് ഞാൻ ഒരുപാട് പേർക്ക് അത് റെക്കമെൻ്റ് ചെയ്യും ഞാൻ എൻ്റെ ഒരുപാട് കൂട്ടുകാർകൊക്കെ പറഞ്ഞോട്ത്തിട്ടുണ്ടാരുന്നു നല്ല കമ്മലാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ കമ്മലാണ് എന്നിരുന്നാലും വളരെ അധികം ക്വാളിറ്റി ഉള്ള ഒരു നല്ല ഒരു കമ്മലായിരുന്നു അത് അതിൻ്റെ കളറാണെങ്കിലും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ ചില കമ്മലുകളൊക്കെ പഴകിപ്പോവും അതേ പോലെ പൊടി പിടിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് ഒട്ടും പൊടി പിടിക്കുകയോ കേടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല കമ്മലാണ് ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി ഒരു ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും കേടുപാടു സംഭവിച്ചിട്ടില്ല നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇപ്പോഴും പുതിയത് പോലെ തന്നെയാണ് എൻ്റെ കമ്മൽ ഇരിക്കുന്നത് എൻ്റെ കമ്മൽ ഒരുപാട് പേർക്ക് ഞാൻ ഇടാൻ കൊടുത്തു ഒരുപാട് പേർ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് വാങ്ങിയത് നല്ല കമ്മലാണല്ലോ എന്താണ് ഈ കമ്മൽ എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവർകൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ ഓൺലൈനിൽ വാങ്ങിയ കമ്മലാണ് വളരെ ഭംഗിയുള്ള ഒരു കമ്മലാണ് വല്യ പൈസയും ആവില്ല പക്ഷെ നമ്മൾക്ക് ഏതൊരു പരിപാടിക്കും ഉപയോഗിക്കാൻ പറ്റിയ കമ്മലാണെന്ന് ഞാൻ പറഞ്ഞ് കൊടുത്തു എല്ലാവർക്കും അപ്പോൾ വളരെ കമ്മലാണ് എല്ലാവരും വാങ്ങാൻ ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു കമ്മലാണ് ഇത്